ബാങ്കിങ് മേഘലയിൽ സമ്പന്നർക്ക് കടന്നു ചെല്ലാവുന്ന ഒരു മേഘലയായിട്ടാണ് പലപ്പോഴും അതു തോന്നിയിട്ടുള്ളത് സാധാരണക്കാരായ ആളുകൾ കടന്നു ചെല്ലുമ്പോൾ ഉദാഹരണത്തിന് നഴ്സിങ്ങിനും അതുപോലെ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് എജുക്കേഷൻ ലോണിനുമൊക്കെ ആയിട്ട് ചെന്നു കടന്നു ചെല്ലുമ്പോൾ അവരെ നൂറുകൂട്ടംകാര്യങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിച്ച് തിരിച്ച് അയക്കുന്ന എങ്ങനെയെങ്കിലും കൊടുക്കാതിരിക്കാനുള്ള ഒരു സ്ഥിതി വിശേഷമാണ് പല ബാങ്ക് മാനേജറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ആ നിലക്ക് മാറ്റം വരേണ്ടിയിരിക്കുന്നു കാരണം അവർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളതു കൊണ്ടാണ് അവർ ബാങ്കിനെ സമീപിക്കുന്നത് ആ അവസരത്തിൽ കയ്യഴഞ്ഞു സഹായിക്കേണ്ടതായ ഒരു സ്ഥിതിയാണ് ഉണ്ടാകേണ്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ സമ്പന്നർക്ക് കടന്നു ചെല്ലുമ്പോഴേക്കും അവരെ കാര്യമായി സ്വീകരിച്ച് അവർക്കു വേണ്ടതായ കാര്യങ്ങൾ പെട്ടെന്നു ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥിതി നമ്മൾ പലയിടത്തും കാണാനുണ്ട് അതുകൊണ്ടാണ് ആളുകൾക്ക് അകൽച്ചയായിട്ട് സാധാരണക്കാർക്ക് അപ്രാപ്യമായ ഒരു സ്ഥാപനമായി ബാങ്കിങ് മാറിക്കഴിഞ്ഞിരിക്കുന്നത്

ലോണിന് വ പന്ത്രണ്ടും പതിമൂന്നുമൊക്കെ എടുക്കുമ്പോഴേക്കും നി നിക്ഷേപത്തിന് ഏഴും എട്ടും മാത്രം കൊടുക്കുന്ന ഒരു സ്ഥിതി വിശേഷം കുറച്ചു കൂടി ഇൻക്രീസ് ചെയ്തു കഴിഞ്ഞാൽ റിട്ടയർ ചെയ്ത ആളുകൾക്കൊക്കെ അവരുടെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ബാങ്കിലിട്ടതിനു ശേഷം അതുകൊണ്ട് സ്വാഭാവികമായും കഴിയുവാനുള്ള അവരുടെ അനുദിന ജീവിത മാർഗ്ഗങ്ങൾ മറ്റു വിധത്തിൽ തേടാതെ ഈ നിക്ഷേപം കൊണ്ട് സാദ്ധ്യമാക്കുന്നതിന് സ സാധിക്കുന്നു അതുപോലെ വർഷംതോറുമുള്ള ഇ ഈ കെ വൈ സി ഇ എടുക്കുന്ന ഒരു സംവിധാനം അതിൻ്റെ ആവശ്യമില്ല എന്തെങ്കിലുമൊക്കെ മ മാറ്റം വരികയാണെങ്കിലോ ഒപ്പിനോ വല്ല സിഗ്നേച്ചറിനോവല്ല മാറ്റം വരികയാണെങ്കിൽ മാത്രം അവർ ഇത് പുതുക്കിയാൽ മതിയെന്നുള്ള ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു സാധാരണകാർക്കിത് ഓരോ വർഷവും ബാങ്കിൽ ചെന്നു കെ വൈ സി പുതുക്കേണ്ടതായ ഒരു സ്ഥിതി വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്